ഹലോ

സാറേ എന്റെ കുട്ടി അവിടെ സാറിന്റെ കോളേജില് പഠിക്കനായിട്ട് വരുന്നുണ്ട് ങേ അത് ബി എ എക്കണോമിക്സ് എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതില് ഏതാ സാറേ അവിടെ നല്ലത്

ഈ കാര്യം കൗണ്സിലിംഗ് ഒന്നും ഗൈഡിങ് കൊടുക്കാറുണ്ടോ ങേ ഇല്ലല്ലേ ആ ആണല്ലേ ആ

സാർ നമ്മുടെ പിള്ളേര്ക്ക് നിങ്ങൾ എങ്ങനെയാണ് കൗണ്സിലിങ്ങൊക്കെ കൊടുക്കുന്നത് ആ ആയിക്കോട്ടേ അതുകൊണ്ട് നമ്മുടെ പിള്ളേര്ക്ക് അവരുടെ കാര്യങ്ങളില് എന്തേലും ഗുണം ഉണ്ടാകുമോ ഉവ്വ സാറേ നിങ്ങളത് നന്നായിട്ട് ഗൈഡ് ചെയ്യാറുണ്ടോ നമ്മുടെ സ്കൂളിൽ നമ്മുടെ പിള്ളാരെ അല്ല ഗൈഡ് ചെയ്യാറുണ്ടോ

ഉവ്വ ഉവ്വ ആ അപ്പോൾ അവര്ക്ക് നല്ല ട്യൂഷനും ഒക്കെ കൊടുക്കുവായിരിക്കും അല്ലേ

ആ ആ ആ ആ അപ്പോൾ അവര്ക്ക് വേണ്ടതായ എല്ലാ സഹായങ്ങളും അവിടന്ന് ഉണ്ടാവുകയും ചെയ്യും ഇല്ലേ ആ ഒരുവിതം മാര്ക്കുള്ള കുട്ടിയാണ് ഇത് എത്ര വര്ഷത്തെ കോഴ്സാണ് സാറേ ഇത്

ആ കുട്ടിക്ക് നല്ല മാര്ക്കൊക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് ചോദിച്ചത് ആ ആ ഉവ്വ് ഉവ്വ ഏ ആ ആ ആ ആ അപ്പോൾ

ആ ഉവ്വ ഉവ്വ ആ ഉവ്വ ആ ആ അവന്റെ ഭാവിയുടെ രെ ഇതിനുവേണ്ടിയാണല്ലോ അതുകൊണ്ട് അവന്റെ ഇഷ്ട്ടം കൂടെ നോക്കിയാണ് നമ്മള് നോക്കുന്നത് ആ സാറേ ഞാൻ നമ്മുടെ കോളേജിനെ പറ്റി നല്ലൊരു അഭിപ്രായം നിങ്ങളുടെ കോളേജിനെ പറ്റിയെ നല്ലൊരു അഭിപ്രായം കേട്ടതുകൊണ്ടാണ് ഞാന് വിളിച്ചത് ആ അപ്പോൾ സാറേ ആ അങ്ങനെയൊക്കെ ആണെങ്കില് നാളെ ഞാന് വരാം ങേ നമുക്ക് നേരിട്ട് കണ്ട് ആ ഉവ്വ ഓഫിസിലോട്ട്